അതേ കുടുംബശ്രീ മുഖേനയായി ലോണെടുത്തിട്ടുണ്ട് കുടുംബശ്രീ മുഖേന ആയതുകൊണ്ട് തന്നെ ലോണെടുത്തതിന് ഒരുപാടാനുകൂല്യങ്ങളും കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ ലോണെടുക്കുമ്പോൾ അതിനൊരുപാട് പലിശയും കാര്യങ്ങളൊക്കെ അടക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇത് ഒരു കൂട്ടായ്മയുടെ ഒരു ഒത്തൊരുമ ആയതുകൊണ്ട് അയൽക്കൂട്ടം കുടുംബശ്രീ വഴി നമുക്കൊരു ലോണെടുക്കുകയാണെങ്കില് അതിന് അതിന്റേതായിട്ടുള്ള സബ്സീഡിയും കാര്യങ്ങളും ഒക്കെ കിട്ടും നമുക്ക് എത്രയാണെന്ന് വെച്ചെങ്കിലും നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പൈസ ബാങ്ക് ഈ ഇത്രയും ആൾക്കാരെ മുഖേന നമുക്ക് തരും നമുക്ക് അതിനായിട്ട് മറ്റ് വേറെ കാര്യങ്ങള് അതായത് ആധാരം വയ്ക്കുകയോ അല്ലെങ്കിൽ വേറെ വല്ല കാര്യങ്ങള് ബാങ്കില് കൊണ്ട് വെക്ക് വയ്ക്കണ്ട ആവശ്യമൊന്നും വരില്ല ഇങ്ങനെ അയല്ക്കൂട്ടം വഴി നമുക്കൊരു ലോണ് എടുക്കയാണെന്നുണ്ടെങ്കില് വായ്പ്പ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ കാര്യങ്ങള് നന്നായിട്ട് നടക്കുകയും ചെയ്യും ബാങ്കും ഇത്തരം കാര്യങ്ങൾക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ട് കൂടെ നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് മറ്റ് അതായത് നമുക്ക് വേറെ തരത്തിലൊക്കെ നമുക്ക് ലോണെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരുപാട് ഫോര്മാലിറ്റീസ്സും കാര്യങ്ങളും നമുക്ക് ചെയ്യണം ഒരുപാട് പേപ്പേഴ്സ് സൈന് ചെയ്യുകയും ഒരുപാട് കാര്യങ്ങള് നമുക്ക് ബാങ്കില് ആധാരം ആയിട്ടും വേറെ വല്ല വാല്യൂഡ് ഇത് ഒക്കെ ആയിട്ട് നമുക്ക് ബാങ്കിൽ കാണിക്കണ്ട ആവശ്യം ഒക്കെ വരും പക്ഷെ ഇങ്ങനെ ഒരു കുടുംബശ്രീ മുഖേന നമ്മള് ലോണെടുക്കുന്നതുകൊണ്ട് യാ അതി അതിന്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവില്ല